ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ കൊതുക് പരത്തുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് തലത്തിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഇന്ന് നിലവിലുണ്ട് പഞ്ചായത്തിൻ്റെ തന്നെ കർമ്മ ഹരിത കർമ്മ സേനയുടെ ആൾക്കാർ വീട് വീടാന്തരം കയറി അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ വീടിൻ്റെ പരിസരത്തോ പറമ്പിലോ ഉണ്ടോ എന്ന് നോക്കി അതെങ്ങനെ മാറ്റാം അതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം അവരു വഴി നടത്തുന്നുണ്ട് ലഘുലേഖകൾ വിതരണം ചെയ്തു അതിൽ കൊതുക് പരത്തുന്ന രോഗങ്ങളെ കുറിച്ചു ആൾ ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി വരുന്നു വെള്ളം കെട്ടി കിടക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അവരെ അറിയിക്കുന്നു അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ കെട്ടി കിടക്കുന്നതൊക്കെ മാറ്റാനായിട്ട് അവയുടെ ഇടയിലൊക്കെ കൊതുക് പെരുകുന്നതു കൊണ്ട് അതൊക്കെ മാറ്റാനായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് വഴി ആവിഷ്ക്കരിച്ചു നടത്തി വരുന്നു അതുപോലെ തന്നെ വെള്ളം ജലത്തിലൂടെ വരുന്ന രോഗങ്ങൾ മലേറിയ പോലെ മറ്റു രോഗങ്ങളുമൊക്കെ തടയുന്നതിനു വേണ്ടി ജലം ഉപയോഗിക്കുമ്പോൾ ശുദ്ധമായ ജലം കുടിക്കുന്നതിനും അത് എങ്ങനെ ശുദ്ധമാക്കാമെന്നുള്ള രീതികളും പഠിപ്പിക്കുക ആൾക്കാർക്ക് അതിനെ കുറിച്ചു ബോധവൽക്കരണം നടത്തി വരുന്നുണ്ട് ഡെങ്കിപ്പനി അതുപോലെയുള്ള രോഗങ്ങൾ വരുമ്പോൾ പഞ്ചായത്തിൽ അറിയിപ്പ് നൽകുന്നതിനും രോഗത്തെ കുറിച്ച് കാര്യക്ഷമമായി ആ രോഗത്തെ എങ്ങനെ നേരിടാമെന്ന് ഉള്ള അറിവ് ജനത്തിന് പകർന്നു കൊടുക്കുകയും ചെയ്തു വരുന്നു അതുപോലെ തന്നെ ഡെങ്കിപ്പനി വരുന്ന ജനങ്ങളുടെ എണ്ണം ഒരു കണക്ക് സൂക്ഷിക്കുന്നുണ്ട് എത്രയോ ആൾ എത്ര ജനങ്ങളിലാണ് ഈ രോഗം കണ്ടുവരുന്നത് അതുപോലെ തന്നെ രോഗ ലക്ഷണങ്ങളെ കുറിച്ചു ജനങ്ങൾക്ക് അറിവ് നൽകി വരുന്നു അപ്പോൾ അവർക്ക് ഏത് രോഗമാണ് ഇതെന്ന് അറിയാനായിട്ട് സാധിക്കും പ്രതിരോധ ശക്തി ജനങ്ങളിൽ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ച് വരുന്നു എങ്ങനെ ശരീരത്തെ ഈ രോഗങ്ങളിൽ നിന്നും പ്രതിരോധിക്കാമെന്നും എങ്ങനെ എന്ത് മാർഗങ്ങളാണ് രോഗം പകരാതിരിക്കാനായിട്ട് ചെയ്യേണ്ടതെന്ന് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുത്തും ചെയ്തു വരുന്നു അതുപോലെ തന്നെ വിവിധ രോഗങ്ങളുണ്ടാകുമ്പോൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് പകർച്ചവ്യാധി മറ്റുള്ള ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും പ്രത്യേകം ഭാഗിച്ചു കൊടുക്കുന്നു കൊതുകുതിരി പോലുള്ള സാധനങ്ങൾ പഞ്ചായത്തിൽ വിതരണം ചെയ്തു അവ ഉപയോഗിച്ചു കൊതുകിനെ നശിപ്പിക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധ നടത്തി വരുന്നു ശുദ്ധജലം കുടിക്കുന്നതിനുള്ള വഴികൾ വിവിധ തരത്തിൽ ആവിഷ്കരിച്ചു വരുന്നു ഈ രോഗങ്ങളിൽ നിന്നൊക്കെ എങ്ങനെ മുക്തി നേടാം എങ്ങനെ സൗഖ്യം പ്രാപിക്കാമെന്ന് പഞ്ചായത്തിലുള്ള ജില്ലാ ഹോസ്പിറ്റലുകൾ വഴിയും മനുഷ്യരിലേക്ക് പ്രതിരോധിക്കാനുള്ള മരുന്ന് വൈറ്റമിൻസ് ആണെങ്കിലും നൽകി ആൾക്കാരെ സഹായിച്ചു വരുന്നുണ്ട്